നമ്മുടെ ഒക്കെ സംസ്കാരത്തില് എന്ന് പറയുമ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മള് പെണ്ണ് കാണാന് പോകുന്ന ചടങ്ങാണ് സാധാരണ കണ്ടുവരുന്നത് അതായത് നമുക്ക് ഇഷ്ടപെടാന് ഒരു സ്ത്രീയെ പോയിട്ട് കാണുകയും ഇഷ്ടമാവുകയും ചെയ്തുക്കഴിഞ്ഞാല് അടുത്ത ചടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മള് തീയതി നിശ്ചയിക്കുകയും അതിനെ തുടര്ന്ന് തീയതിയില് കല്യാണം ഫിക്സ് ചെയ്യാന് ഒക്കെയായിട്ട് ഉറപ്പീര് അങ്ങെനെ ഒക്കെ ചടങ്ങുകളാണ് നമ്മള് കണ്ടുവരുന്നത് അതിനു ശേഷം നമ്മള് കല്യാണത്തിന് ദിവസങ്ങളില് നേ ചെക്കനും പെണ്ണൊക്കെ ഒരുക്കാന് കൊണ്ട് പോവുക അതിന് ശേഷം അനുഗ്രഹം മേടിക്കുക അനുഗ്രഹം മേടിച്ചതിനു ശേഷം അമ്പലത്തിലേക്കോ അമ്പലത്തില് വെച്ചാണെങ്കില് അമ്പലത്തില് അല്ലെങ്കില് വീട്ടില് വെച്ചാണെങ്കില് അങ്ങനെ അവിടെ വച്ചാണ് കല്യാണം ചടങ്ങെളൊക്കെ നടത്തുന്നത് പിന്നെ താലി പൂജിക്കാന് കൊടുക്കുന്ന ചടങ്ങാെക്കെയുണ്ട് അമ്പലങ്ങളില് ഒക്കെ ആണെങ്കിൽ താലി പൂ ഹിന്ദുകളാണെങ്കിൽ താലി പൂജിക്കുന്ന കണ്ടിട്ടുണ്ട് ക്രിസ്തൃാനികള് പള്ളിയില് ഞാന് അങ്ങെനെ ക്രിസ്തൃനികളുടെ ചടങ്ങ് അധികം കൂടിയിട്ടില്ല മുസ്ലീങ്ങളുടെ പരിപാടിക്ക് ഞാന് അങ്ങനെ അധികം പോയിട്ടില്ല സാധാരണ ഞാന് പോകുന്നത് ഹിന്ദുക്കളുടെ പരിപാടിക്ക് മാത്രമാണ് ഞാനൊരു അത് എന്താ പറയുക ഞാന് വേറൊരാളുടെയും അങ്ങനെ കല്യാണ ചടങ്ങുകളെ പറ്റി കൂടുതൽ അങ്ങനെ ആലോചിച്ചിട്ടുമില്ല